എനിക്ക് ജീവിതത്തിൽ നേ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ വെല്ലുവിളി പൈസ ഇല്ലായ്മതന്നെയാണ് പണമില്ലാത്തത് കൊണ്ടുതന്നെ പല അവസരങ്ങളും നഷ്ടമാവുകയും സ്വന്തമായൊരു വീടില്ലാതാവുകയും പിന്നെ പല പ്രശ്നങ്ങളും എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് സ്വന്തമായി ഒരു വരുമാനവും ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് പോലും ഞാൻ പല പല പണികൾക്ക് വേണ്ടി പോകുകയും അധ്വാനിക്കാൻ തയ്യാറാകുകയും ചെയ്തിട്ടുണ്ട് പണം ഏറ്റവും വലിയൊരു ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഘടകമാണെന്ന് മനസ്സിലാക്കിയ സമയം മുതൽക്ക് തന്നെ എൻ്റെ അധ്വാനം ആരംഭിക്കു ച്ചു ആരംഭിച്ചിട്ടുണ്ട് അതെ സമയം തന്നെ പഠിപ്പ് പഠിപ്പ് വിടാതെ തന്നെയാണ് ഞാന് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാനിപ്പം നല്ലൊരു ജോലിയില് എത്തിയിരിക്കുന്നു അത് എൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളിയായ പണം എന്ന കാര്യത്തെയും നല്ലൊരു വീട് എന്ന കാര്യത്തെയും ഞാൻ നേരിട്ടത് എൻ്റെ കഠിനാധ്വാനം കൊണ്ടും തളർന്ന് പോകാതെ ഏതൊരു ഘട്ടത്തിലും ഏതൊരു താഴ്ന്ന ഘട്ടത്തിലും തളർന്ന് പോകാതെ മുന്നോട്ട് എന്ന ചിന്തയിലൂടെ എൻ്റെ വിദ്യാഭ്യാസം കൈ കൂട്ടിപ്പിടിച്ച് കൊണ്ട് മുന്നോട്ട് പോയതുമാണ് അങ്ങനെയാണ് ഞാൻ എൻ്റെ എല്ലാ ജീവിത്തിലെ നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ നേരിട്ടത്